ഹലോ ഷെറിൻ ബിജു അല്ലെ താങ്കൾ സ്പോർട്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണല്ലോ അപ്പം ഈ ഇടെ ഇന്ത്യയ്ക്ക് കപ്പ് അടിച്ചു അതിനെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു ഇന്ത്യക്ക് ഇപ്പം പതിനേഴ് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു നമുക്ക് ടി ട്വൻ്റി കപ്പ് കിട്ടുന്നത് അപ്പം അതിനു വളരെ സന്തോഷമുണ്ട് ആദ്യം തന്നെ അതിൻ്റെ സന്തോഷം ഞാൻ പറയുന്നു പിന്നെ അതു കിട്ടാനായിട്ടുള്ള കാരണമായ വിരാട് കോലിയാണെങ്കിലും രോഹിത് ശർമ്മ ആണെങ്കിലും ഇന്ത്യൻ ടീമിൽ കളിച്ച എല്ലാവരും സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ അർഷദ്ദീപ് സിംഗ് എല്ലാവരും എല്ലാവരും ശിവൻ ദുബയ് അവരെല്ലാം വളരെ മനോഹരമായിട്ടു കളിച്ച അതിൻ്റെ ഇതായിട്ടു തന്നെയാണ് നമുക്കു കപ്പ് കിട്ടിയത് അതും ഒരു കളി പോലും തോൽക്കാതാണ് നമുക്ക് കപ്പ് കിട്ടിയത് എന്നുള്ളതു പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം മോൽ നമ്മുടെ ടീമിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് നമുക്കു കപ്പ് കിട്ടിയത് പിന്നെ അവർ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത സഞ്ചൂ സാംസൺ എന്നു പറയുന്ന പ്ലെയറിനെ കളിപ്പിക്കാഞ്ഞത് വളരെ മോശമായിപ്പോയെന്നു ഞാൻ പറയുന്നു കാരണം ഒരു കളി മാത്രം കളിപ്പിച്ചിട്ട് ബാക്കി ഒന്നും കളിപ്പിക്കാതിരുന്നത് എല്ലാം വളരെ എന്താ പറയുക വളരെ മോശമായി പക്ഷേ എങ്കിലും നമ്മൾ കപ്പടിച്ചതിനു വളരെ സന്തോഷമുണ്ട് പിന്നെ വിരാട് കോലിയും രോഹിത് ശർമ ഹിറ്റ്മാൻ രോധിത്ത് ശർമയും ജഡേജയും എല്ലാം വിരമിക്കലും കൂടി പ്രഖ്യാപിച്ചു കപ്പ് കിട്ടിയതിനുശേഷം കപ്പ് കിട്ടി നമ്മളാണ് ആ കണ്ടു കൊണ്ടിരിക്കുക മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം ആ ലാസ്റ്റ് ഓവർ ആകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാം നെഞ്ചിടിച്ചായിരിക്കും നമ്മളെല്ലാം കാണുന്നത് പക്ഷേ ആ സമയത്തും വളരെ മനോഹരമായിട്ടു തന്നെയാണ് ഹർദിക്കിൻറെ കയ്യിൽ ക്യാപ്റ്റൻ ആ ഓവർ കൊടുത്തു നമുക്കു വിക്കറ്റ് രണ്ടെണ്ണം അടിപ്പിച്ചു കിട്ടിയ ആ കളിയുടെ ഗതി തന്നെ മാറി നമുക്ക് കപ്പ് കിട്ടിയത് അത് വളരെ മനോഹരമായ ക്യാപ്റ്റൻ്റെ ഒരു തീരുമാനം തന്നെയായിരുന്നു എന്നു പറയാം പിന്നെ ആ സീരിസ് ഓഫ് ദ പ്ലെയർ ആയ ബുംറ ആണെങ്കിലും മേൻ ഓഫ് ദ മാച്ചായ വിരാട് കോഹ്ലി ആണെങ്കിലും വളരെ മനോഹരമായിട്ടു കളിച്ചെന്നു തന്നെ പറയാം അതു ഉറപ്പായിട്ടും അവരുടെ കഴിവുകൊണ്ടു തന്നെ കിട്ടിയെന്നു നമുക്കു പറയാൻ സായിട്ട് സാധിക്കും പിന്നെ അവർ ഇന്ത്യയിലോട്ടു വന്നപ്പോൾ കിട്ടിയ സ്വീകരണം എല്ലാം ക്രിക്കറ്റ് എന്നു പറയുന്ന ആ ഒരു സ്പോർട്സിനു നമ്മൾ ഇന്ത്യക്കാർ കൊടുക്കുന്ന ആ ഒരു ആ ഒരു സ്വീകരണത്തിൻ്റെ എല്ലാം ഭാഗമാണത് അത് അതു കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യക്കാർക്ക് ക്രിക്കറ്റ് എന്നു പറയുന്നത് എന്തോ ആണ് അപ്പോൾ എന്താ ആ അവരുടെ അ നമ്മളുടെ പതിനേഴ് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനു ശേഷം ഇന്ത്യയിലോട്ടു കപ്പു കൊണ്ടുവന്ന രോഹിത് ശർമയും സംഘവും വളരെ മനോഹരമായിട്ടാണ് ആ ഇതിൽ കളിച്ചതെന്നു തന്നെ നമുക്ക് പറയാനായിട്ടു പറ്റും പിന്നെ ഇടയ്ക്കൊന്നു രോഹിത് ശർമ ആ ലാസ്റ്റ് ഫൈനൽ മെല്ന് ഫൈനലിന് രോഹിത് ശർമ ഔട്ടായി പോയപ്പോൾ തന്നെ എല്ലാവരുടെയും ഇത് പോയിട്ടിരിക്കുവായിരുന്നു നമ്മൾ ഇനി എന്തു ചെയ്യുമെന്ന് ഓർത്തിരുന്നപ്പോഴത്തേക്കാണ് വിരാട് കോലി കളിച്ചു നല്ലൊരു നന്നായിട്ട് കളിച്ച് ഇന്ത്യേനെ മെച്ചപ്പെടുതിയൊരു സ്കോറിലേക്ക് എത്തിക്കുകയും പിന്നെ ബുംറെയുടെയും അക്സർ പട്ടേലിൻ്റെയും ഹർഷദ്വീപിൻ്റെയും ജഡേജയുടെയും ഹർദിക്കിൻ്റെയും ഒക്കെ നല്ല കഠിന ശ്രമത്തിലൂടെയാണ് നമുക്ക് അവരുടെ വിക്കറ്റ് ഓസ്ട്രേലിയ അവരുമായിട്ടുള്ള വിക്കറ്റ് വീഴ്ത്താൻ ആയിട്ടുമെല്ലാം സാധിച്ചത് ഇപ്പം അതെല്ലാം വളരെ മനോഹരമായിരുന്നു എന്നെ ഞാൻ പറയാതെയുള്ളു പിന്നെ മാച്ച് ജയിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിലും അവരുടെ സന്തോഷവും എല്ലാം നമ്മൾ കണ്ടതാണ് അവർ ഇന്ത്യൻ പതാകയും പിടിച്ച് അതുവഴിയെല്ലാം നടക്കുന്നത് ഗ്രൗണ്ടിന് ചുറ്റും നടക്കുന്നത് ആരാധകർക്കെല്ലാം ആവേശം വരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അതെല്ലാം അതുവഴി ഹിറ്റ്മാനായിട്ടുള്ള രോഹിത് ശർമ ബാക്കി കളിയിലെല്ലാം നല്ല മികച്ച രീതിയിൽ കളിച്ച് നമ്മളുടെ ഇന്ത്യനെ തോപ്പിക്കാതെ ഫൈനൽ കപ്പു അടിച്ച് അങ്ങനെ ഒരു മാച്ച് തന്നെ ആദ്യമായിട്ടായിരിക്കും നമ്മൾ നേരത്തെ എല്ലാം തോറ്റതിനുള്ള തിരിച്ചടിയായിരിക്കും ഇതിന് ഇതെല്ലാം എങ്കിലും നല്ല നല്ല മികച്ച ര രീതിയിലായിരുന്നു അവരെല്ലാം കളിച്ചത് രോഹിത് ശർമയുടെ കാര്യമൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല വിരാട് കോഹ്ലി അവരുടെ അവസാന കളിയായിരുന്നിട്ടും അവർ നല്ല അതിൻ്റെ ഒരു ഒരു രോഹിത് ശർമ ജയിച്ച നിമിഷം ഗ്രൗണ്ടിൽ കിടന്നു കരയുന്നു മുത്തമിടുന്ന എല്ലാം നമ്മൾ കണ്ടതാണ് അതെല്ലാം വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളെ തോളിലേറ്റി കപ്പും പിടിച്ചുനിൽക്കുന്നതും അദ്ദേഹം കപ്പു വാങ്ങിക്കാൻ നടന്നു വന്നതും എല്ലാം ഫേമസായ ഒരു അയ്യേ കുറെ ട്രെൻഡായ കുറെ കാര്യങ്ങളാണ് ആ കപ്പ് വാങ്ങിക്കാൻ നടന്നു വരുന്ന ഇതെന്നു പ റയുന്നത് കോച്ച് ആയിട്ടുള്ള രാഹുൽ ദ്രാവിഡിന് കപ്പ് കൈമാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷവും എല്ലാം അവരുടെ ആ കഠിനപ്രയത്നത്തിൻ്റെ തന്നെയാണെന്ന് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അവർ കളിച്ചത് അതു നമുക്കു പറയാതിരിക്കാൻ പറ്റത്തില്ല വളരെ മികച്ച രീതിയിൽ